ആ അതെ ഇത് ആരാണ് ആ ആ ഏതേനു വേണ്ടേ രണ്ടും വേണോ അല്ലെങ്കില് ഒരെണം ആയിട്ട് ആ ആ രണ്ടിനും കൂടിയൊരു പതിമൂവായിരത്തഞ്ഞൂറ് റുപ്പിക ആകും കേട്ടോ ആ പതിമൂന്നായിരം അല്ല നിങ്ങള് രേഖകളൊക്കെ ഉണ്ടാകുമല്ലൊ അതൊക്കെ നമുക്ക് അയച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടീട്ടൊരു മൂവായിരം രൂപ എന്തായലും ആദ്യം തന്നെ അടയ്ക്കണ്ടി വരും പ്രച്ചം ആ അത് അങ്ങനെ അടച്ചാൽ മതി നിങ്ങള് ആ അങ്ങനെ മതി അങ്ങനെ മതി നിങ്ങൾക്ക് എങ്ങനെ സ്ത്രീകളാകണം അങ്ങനെന്തെങ്കിലും ഉണ്ടോ പഠിപ്പിക്കണം ആ സ്ത്രീകളാണെങ്കിൽ രാവിലെ ഏഴ് മണി തൊട്ട് എട്ടര വരെയാണ് പിന്നാ പുരുഷൻമാരാണെങ്കില് എല്ലാ സമയത്തും ഉണ്ടാവും രാവിലെ ഉണ്ട് വൈകുന്നേരവും ഉണ്ട് ആ ആ നിങ്ങള് ആ നിങ്ങൾക്കാ ആ നാളെ എന്നെ വിളിച്ചാൽ മതി രാവിലെ ഏഴര ആ ഞാനുണ്ടാവും അവിടെ നാളെ ആ ആ ശരി